എൻ്റെ വീട്ടിൽ കക്കൂസ് ഉണ്ട് കാരണം എന്താവെച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ കക്കൂസ് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം നമ്മുടെ പ്രാ നമ്മൾ ഇപ്പം കക്കൂസില്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പുറത്തൊക്കെ പോയി ബാത്ത്റൂമിൽ ഒക്കെ പോയി പോകാണ്ട് നമ്മൾ പുറത്ത് പറമ്പിൽ ഒക്കെ പോയിരുന്ന് പ്രഭാത കൃത്യങ്ങൾ ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ശരിക്കും ഈ കക്കൂസിൻ്റെ ഉപയോഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പകർച്ച വ്യാധികളൊക്കെ വല്ലാണ്ട് കൂടുതലായിരുന്നു പണ്ടുള്ള സമയങ്ങളിൽ ഒക്കെ അപ്പോൾ അവർ ഈ നമ്മുടെ മലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിനകത്ത് കയറി ചവിട്ടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് അണുബാധയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ മനുഷ്യരുടെ മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പലതരം ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാത്തിൽനിന്നും ഉള്ള വിസർജ്ജന വിസർജ്ജന ഇതായത് കൊണ്ട് നമുക്ക് പല രോഗങ്ങളും വരും അപ്പോൾ നമുക്ക് ശ്വസിച്ചാലോ നമ്മൾ അതിനകത്തു കേറി ചവിട്ടിയാലോ എന്തെങ്കിലുമൊക്കെ പല അസുഖങ്ങളും വരുന്നത് കൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്തു അത് ഒരു കക്കൂസ് ഉണ്ടാക്കി അതിനകത്ത് കാര്യങ്ങൾ ഒക്കെ സാധിക്കാൻ വേണ്ടീട്ടാണ് കക്കൂസ് നിർമ്മിച്ചത് അപ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ട് എല്ലാ വീട്ടിലും കക്കൂസ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ബാത്ത്റൂമിൽ പോകാനും ഇപ്പം കൾച്ചർ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ വീട്ടിലും ബാത്ത് റൂം വേണമെന്നാണ്